എനിക്ക് പ്രിയപ്പെട്ട ഒരു സാഹിത്യ കഥാപാത്രമാണ് ബെന്യാമൻ്റെ ആടുജീവിതം എന്നു പറയുന്ന ആ കഥയിലെ ആ സാഹിത്യ ഒരു പുസ്തകത്തിലെ ആ കഥാപാത്രം എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം അവര് മരുഭൂമിയിൽ കിടന്നു അവരുടെ ഒരു ജീവിത കഥ അവരുടെ അവർ സഹിച്ച അവർ പോയ രീതികളും അതൊക്കെയാണ് ആ കഥയില് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമക്കും നമ്മളിതുവരെ ഒന്നും നമ്മൾക്കൊരുപാട് വിഷമങ്ങളും ഒരുപാട് കഷ്ട്ടപ്പാടുകളുമൊക്കെ ഉണ്ട് എങ്കിൽ പോലും ആ പുസ്തകത്തിലെ ബെന്യാമൻ്റെ ആടുജീവിതം എന്നു പറയുന്നത് ആ ഒരു കഥാപാത്രത്തിൻ്റെ ജീവിതമാണ് ആടിനെ പോലെയാണ് അവര് പ പണിയെടുത്തത് മരുഭൂമിയിൽ കെടന്ന് ഭക്ഷണമോ കുടിക്കാനോ വസ്ത്രം അങ്ങനെ ഒന്നും തന്നെ ഇല്ലാതെ പട്ടിയെ പോലെ അല്ലെങ്കിൽ ഒരു ഒരു മൃഗത്തിനെ പോലെ തന്നെയാണ് ആ ഒരു കഥാപാത്രം ജീവിച്ചു കൊണ്ടിരുന്നത് അപ്പം അതൊക്കെ വായിക്കുമ്പോൾ നമ്മക്കും എനിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചതെന്നു വെച്ചാല് നമ്മളതു പോലെ കഷ്ട്ടപ്പെട്ടിട്ടില്ല എന്നാൽ മറ്റുള്ളവരുടെ ആ കഷ്ടപ്പാടു കേൾക്കുമ്പോൾ നമുക്ക് ന ആ ആ ഒരു കഥാപാത്രം പോയ ഒരു രീതിയിലൂടെയാണ് നമ്മളും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊക്കെ ഈ ഒരു കഥ കഥാപാത്രം അതുപോലെ അവര് അവരുടെ ആ ഒരു ജീവിതവും അത് എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു